ന്നാ ഒത്തിരി ആൾക്കാർ നേരിടുന്ന ഒരു പ്രശ്നമാണ് നടുവിന് വേദന നടുവിന് വേദന മൂലം ജോലികൾ ചെയ്യാൻ കഴിയാത്ത കിടന്നുറങ്ങാൻ കഴിയാത്ത ഒത്തിരി ആൾക്കാരുണ്ട് ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ നടുവിന് വേദനയ്ക്ക് ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ് നടുവ് നന്നായിട്ട് തിരുമ്മുക അത് ഉഴിച്ചിൽ എന്ന് പറയും നല്ല മർമ്മാണി തൈലം ഇട്ട് തിരുമ്മി ചൂട് പിടിപ്പിക്കുക നല്ല വെള്ളം തിളപ്പിച്ച് അതിൽ ലേശം ഉപ്പും കൂടെ ഇട്ടിട്ട് തുണി അതിനകത്ത് മുക്കി നന്നായിട്ട് ചൂടുപിടിപ്പിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത് പിന്നെ കൂടുതൽ എന്നിട്ടും മാറാത്ത നടുവിന് വേദനകൾക്ക് ഈ കഷായം കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് മർമ്മ ചികിത്സ ചെയ്യുന്ന ആൾക്കാർ ഞങ്ങളുടെ ഈ പ്രദേശത്തുണ്ട് പിന്നെ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കാനും പഥ്യം എന്നൊക്കെ പറയും അതൊക്കെ മാറ്റിയിട്ട് മത്സ്യവും മാംസവും ഒക്കെ മാറ്റി കഷായം കുടിക്കുന്ന ഒരു കാര്യം കൂടി ഉണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വീടുകളിലാണെങ്കിലും അല്ലാതെയും ചെയ്യുന്നത് നടുവിന് വേദനയ്ക്ക് തിരുമ്മുന്നതാണ് നടുവ് സാധാരണ ഒത്തിരി പേർക്ക് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് നടുവിനു വേദന നടുവ് തിരുമ്മുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നന്നായിട്ട് തിരുമി ചൂട് പിടിച്ച് കഴിയുമ്പോഴോ എല്ലാവരുടെ മിക്ക ആൾക്കാരുടെയും നടുവിൻ്റെ വേദന മാറാറുണ്ട് അതാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ആൾക്കാർ ചെയ്യുന്നത്